ബൈക്കിൽ നമ്മൾ വെല്ലുവിളി നിറഞ്ഞ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പൈതൽ മലയിൽ നമ്മൾ ട്രെക്കിംഗ് പോയിൻ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാതയാണ് നമ്മൾ ഇവിടുന്ന് തുടങ്ങുമ്പോഴേ കുറച്ചു മുന്നോട്ട് ആ മലകളൊക്കെ തുടങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ റോഡ് ഭയങ്കര കുണ്ടും കുഴിയും നിറഞ്ഞിട്ടുള്ള റോഡായിരുന്നു അപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു റോഡ് റോഡിൻ്റെ സമയത്ത് പോലും ആ ഒരു സമയത്ത് പോലും നല്ല മഴയുള്ള സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം കുഴികളിലും ഒട്ടു മിക്ക കുഴികളിലും വെള്ളമായിരുന്നു അപ്പോൾ ആ വെള്ളത്തിൽക്കൂടി പോകാനുള്ള ആ അറിയാതെ ഒരു കുഴിക്കകത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അത് നമുക്ക് അതിൻ്റെ ആഴം മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഏരിയ വഴി നമ്മൾ പോയിട്ടുള്ളത് നല്ല വെല്ലുവിളി ആയിരുന്നു പിന്നെ നമ്മൾ മുകളിലേക്ക് മല മലയിലേക്ക് കയറിയപ്പം ആ പാത ശരിക്കും നമുക്ക് ഒരു ട്രെക്കിങ്ങിന് പറ്റിയ ഒരു ഒരു ബൈക്ക് പോകാൻ പറ്റുന്ന ഒരു പാതയല്ലായിരുന്നു എന്നിട്ടും നമ്മൾ അത് വഴി ആ ഒരു ഈ ഒരു ഇതിനോടുള്ള താത്പര്യം കൊണ്ട് നമ്മൾ ഇത് വഴി പോകുകയാണ് ചെയ്തത് അത് ശരിക്കും ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു ഒരു യാത്ര തന്നെ ആയിരുന്നു